നമ്മള് ഇപ്പോൾ ചെറിയ കുട്ടികള് ഇപ്പോൾ അതാരായാലും പൊതുവേ ചെറിയ കുട്ടികള് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അങ്ങനെ വേർതിരിവൊന്നുമില്ല ചെറിയ കുട്ടികൾക്ക് ആരായാലും യൂഷ്വലായിട്ട് കോമ്മൺലി നമ്മൾ ഏത് ഗ്രാമപ്രദേശങ്ങളിലാണെങ്കിൽ പറയേണ്ട അതായത് പൊതുവേ നമ്മളെ ഗ്രാമപ്രദേശങ്ങളിലാണെങ്കിലും ടൗൺ ഏരിയകളാണെങ്കിലും അവർക്ക് പ്രത്യേക കെയറാണ് എല്ലാ ആൾക്കാരും നൽകു നൽകുക സാധാരണ എല്ലാവരും ഇപ്പോൾ അതെ അതായത് മെയിനായിട്ട് അമ്മമാര് അല്ലെങ്കിൽ അമ്മയുടെ അമ്മമാര് അല്ലെങ്കിൽ അവരെ അനിയത്തിമാര് ചേച്ചിമാര് അവരൊക്കെയാണ് കുറച്ചും കൂടെ ഈ കാര്യങ്ങളില് നമുക്ക് ശ്രദ്ധ വരേണ്ടത് അപ്പോൾ അതില് നോക്കുകയാണെന്ന് പറയുമ്പോൾ അവരുടെ വസ്ത്രം അവര് കിടക്കുന്ന കിടക്ക അവരുപയോഗിക്കുന്ന കളിപ്പാട്ടങ്ങള് അവർക്ക് അവർക്ക് ഭക്ഷണം കൊടുക്കാനുപയോഗിക്കുന്ന പാത്രങ്ങള് അവർക്ക് മരുന്ന് കൊടുക്കാനുപയോഗിക്കുന്ന പാത്രങ്ങള് മരുന്ന് കൊടുക്കേണ്ട സമയം അതുപോലെ അവര് കിടക്കുന്ന മുറി അങ്ങന ഓരോ കാര്യങ്ങളും നമ്മളൾ പടി പടി പടിയായിട്ട് എത്രയും ആക്കുറസിയാണ് എത്രയും സെയ്ഫാണെന്ന് നമ്മള് ഉറപ്പ് വരുത്തും കാരണം ചെറിയ കുട്ടികളായതുകൊണ്ടു അവർക്ക് ഓ ഒന്നാമത്തെ കാര്യം അവർക്ക് പറയാനും കാര്യങ്ങളൊന്നും അറിയില്ല അപ്പോൾ അവർക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുമ്പോൾ നമ്മള് കരച്ചിലോടെ അവര് കരയാൻ മാത്രമേ അറിയുള്ളൂ അപ്പോൾ അതിലൂടെ മാത്രമേ അവർക്ക് പ്രകടിപ്പിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് അത്ര പെട്ടന്ന് കണ്ടുപിടിക്കാനോ കാര്യങ്ങൾക്കോ പറ്റില്ല പിന്നെ പൊതുവേ നമ്മള് ഇത്രയും വൃത്തിയായി വെക്കാൻ പറ്റുവോ അത്രയും വൃത്തിയായി വെക്കുന്ന ഇതിപ്പോൾ എത്ര പൈസയില്ലാത്ത ആൾക്കാരായാലും കുട്ടികളുടെ കാര്യം വന്നാൽ നമ്മളങ്ങനെ വേറെയൊന്നും ചിന്തിക്കില്ലാ പൈസ കണ്ണടച്ച് ചിലവാക്കും അത് ഏത് മാതാപിതാക്കളായാലും അങ്ങനെ തന്നെയാണ് അതിലൽ യാതൊരു കോംപ്രമൈസ് ഒരാളാരും ചെയ്യും ചെയ്യില്ലായെന്നുള്ളതാണ് എന്റെയൊരു അഭിപ്രായം ഞാൻ കണ്ടു വന്നിരിക്കുന്നത് ഇപ്പോൾ അങ്ങനെയാണ് ചുറ്റുവട്ടത്തുള്ള ആരായാലും കുട്ടികളുടെ കാര്യം വന്നു കഴിഞ്ഞാൽ അവര് അതില് യാതൊരു കോംപ്രമൈസും കാണിക്കില്ല